വയനാട് ജില്ലയിലെ ജില്ലയിനെക്കുറിച്ച് പറയുമ്പോൾ ഏറേ പ്രശസ്തമായിട്ടുള്ളൊരു കഥയാണ് കരിന്തണ്ടൻ എന്ന വ്യക്തിയുടെ കഥ ബ്രിട്ടീഷുകാർക്ക് വായനാട്ടിലോട്ടുള്ള വഴി കാണിച്ചുകൊടുത്ത കരിന്തണ്ടൻ എന്ന ആദിവാസി വിഭാഗത്തിൽ പെടുന്ന വ്യക്തിയെ പിന്നീട് ബ്രിട്ടീഷുകാർ ആ ഒരു അവകാശം പോകാതിരിക്കാൻ കളഞ്ഞുപോകാതിരിക്കാൻ കരിന്തണ്ടനെ കൊലപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് പിന്നീട് കരിന്തണ്ടൻ്റെ ആത്മാവ് പലയിടങ്ങളിലായി ആളുകളെ ശല്യപ്പെടുത്തുകയും ആളുകൾക്ക് ഭീഷണിയായി വഴി തടയുകയും ചെയ്യുന്നുണ്ടെന്നുള്ള പരാതികൾ ഉയർന്നു വന്നപ്പോൾ വന്നപ്പോൾ കരിന്തണ്ടനെ ഒരു മരത്തിൽ ചങ്ങലക്കിടുകയും പിന്നീട് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ആ മരത്തിനോടൊപ്പം ആ ചങ്ങലയും വളർന്നുവന്നു എന്ന കഥ ഏറേ ഭയപ്പെടുത്തുന്നതും എന്നാൽ ഏറേ നിഗൂഢതകൾ ഒളിച്ചിരിക്കുന്നതുമാണ്